ഹലോ ഇത് സ്പാഗോ ഹോട്ടലല്ലേ ആ സാർ ഞാനിപ്പം അവട്ന്ന് ഫുഡ് ഓർഡറ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അല്ല എനിക്ക് ഫുഡ് കിട്ടി ഫുഡ് ഞാ നിങ്ങള് പറഞ്ഞ ടൈമില് എത്തീട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇപ്പം ദേ ഫുഡ് കഴിക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്തപ്പോൾ അതീന്ന് ഭയങ്കര സ്മെൽല്ലാണ് കഴിഞ്ഞ ദിവസത്തെ പഴകിയ ഫുഡാന്ന് തോന്നുന്നു ഭയങ്കര സ്മെല്ലന്ന് പറഞ്ഞാൽ അത് തുറന്നപ്പോൾ തന്നെ ഒരു മോശമായിട്ട് സ്മെൽല്ലാണ് വരിക വന്നത് ഞാനവിടുന്ന് പൊറോട്ടയും ബീഫുവായിരുന്നു ഓർഡറ് ചെയ്തത് ഞാനത് തുറക്കുമ്പോൾ തന്നെ ബീഫൊക്കെ എന്തോ ഭയങ്കര വളിച്ച ഒരു സ്മെൽല്ലാണ് വരുന്നത് ആ സാർ ഓക്കെ ത് ഫ്രഷ് ആയിരിക്കും നിങ്ങള് പറയുന്നത് പക്ഷെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്കതിൻ്റെ വീഡിയോ അല്ലേല് നിങ്ങളുടെ അടുത്തേക്ക് ഞാനത് ഞാൻ കൊണ്ടെത്തരാം നിങ്ങള് തന്നെ നോക്കി നോക്ക് ഒരു ആൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഭക്ഷണാണോ ഇതൊക്കെ സാർ സാറ് ഒരാള് നിങ്ങളെ വിശ്വസിച്ചല്ലേ ഫുഡ് ഓർഡറ് ചെയ്യാൻ പറയുന്നത് അപ്പം നിങ്ങളിങ്ങനെ ചെയ്യുമ്പം നമ്മുക്കതിലൊന്നും ചെയ്യാനില്ല സാർ അപ്പം സാർ അതില് ഇപ്പം പൊറോട്ട ആണെങ്കിൽ തന്നേലും ഇലയൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ ആയിട്ടിരിക്കുന്നു ഒരു വൃത്തിയില്ലാത്ത ഭയങ്കര സൗ ഭയങ്കര സ്മെല്ലൊക്കെ ആയിട്ടുള്ള ഫുഡാണ് സാർ എനിക്ക് കിട്ടിയത് എനിക്കത് എനിക്കെന്തായാലും ഇത് കഴിക്കാൻ പറ്റില്ല എനിക്കെന്നല്ല ആർക്കും അങ്ങനെ ഒരു ഫുഡ് കഴിക്കാൻ പറ്റില്ല അത്രയും വിശന്നിരിക്കുന്ന കൊണ്ടായിരിക്കില്ലേ ഒരാള് ഫുഡ് ഓർഡറ് ചെയ്ത് ഇങ്ങനെ നോക്കിയിരിക്ക്യാ വിശന്നു കഴിഞ്ഞപ്പം ഞാൻ നോക്കീട്ടാണ് ഞാൻ ഫുഡ് ഓർഡറ് ചെയ്തത് അതിപ്പം വന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ആണെങ്കിൽ മണം കൊണ്ട് എടുക്കാൻ പോലും പറ്റില്ല പഴകിയ ഭക്ഷണം ഇങ്ങനെ ആൾക്കാർക്ക് കൊടുക്കുന്നതൊരു കേസ്സാക്കി ഞാനിത് ഇപ്പം കേസ്സാക്കിയാ സാറിനിപ്പ പുറത്ത് ജയിലിലൊക്കെ പോയി കിടക്കണ്ട അവസ്ഥ വരും കാരണം ഫുഡിൻ്റെ കാര്യത്തിലത്രക്ക് ഉണ്ടെന്നറിയാമല്ലോ സാർ ഞാനെന്തായാലും ഇതൊരു പ്രശ്നമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല സാർ എനിക്ക് എനിക്ക് ഞാൻ ചെയ്ത എനിക്കെന്തായാലും ഈ ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ തന്ന പൈസ എനിക്ക് വെറുതെ കളയണ്ട ആവശ്യം ഇല്ലല്ലോ അപ്പം സാർ എനിക്കത് റീഫണ്ട് ചെയ്യുന്ന ചെയ്ത് തരണം കാരണം എനിക്കത് കഴിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാനാ പൈസ തരുന്നതില് ഒരർത്ഥം ഇല്ലല്ലോ സാറെ ആ ഓക്കെ സാറെ സാറേ എനിക്ക് ഇനിയാണേലും ആർക്കും ഇങ്ങനത്തെ ഫുഡൊന്നും കൊടുക്കരുത് കാരണം ഇങ്ങനത്തെ ഫുഡ് കഴിക്കാനല്ലല്ലോ ഇവിടിരിക്കുന്നവര് ഇരിക്കുന്നത് പിന്നെ ഇങ്ങനത്തെ ഫുഡുകള് കഴിച്ചാൽ ആർക്കേലും എന്തേലും പറ്റി പോവും അതൊക്കെ നിങ്ങടെ തലേല് വലിയ പ്രശ്നാവും സാർ ഞാൻ ആയത് കൊണ്ട് ഞാനിതിനി വലിയൊരു പ്രശ്നം ആക്കി എടുക്കുന്നില്ല പക്ഷെ ഇനി എല്ലാവരും അങ്ങനെ ആവണന്നില്ല സാർ അത്ന്ന് പറയുമ്പോൾ പഴകിയ ഫുഡാണ് ഇന്നലെ ഇന്നലത്തെ അല്ലാന്ന് തോന്നുന്നു ഭയങ്കര മണം വരുന്നുണ്ട് നിങ്ങളിങ്ങനെത്തെ ഭക്ഷണാണോ നല്ലതാണോ മോശായിട്ടുള്ളതാണോ കൊടുക്കുന്നേന്ന് എന്ന് ഒന്നും കൂടിയും ക്രോസ്സ് ചെക്ക് ചെയ്തിട്ട് വേണം സാർ കൊടുക്കാൻ മേ ബി സാറല്ലായിരിക്കും ഇതെല്ലം കൊടുത്ത് വീടുന്നത് പക്ഷെ സാറിൻ്റെ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ഏതേലും ജോലിക്കാരനായിരിക്കുമല്ലോ ഇത് പാക്ക് ചെയ്തെടുത്ത് കൊടുക്കുന്നത് അവർക്ക് നല്ല പോലെ അവരോട് നന്നായി ശ്രദ്ധിച്ചെടുത്ത് കൊടുക്കാൻ പറ സാർ എനിക്ക് കിട്ടീത് കിട്ടി ഇപ്പോൾ ഞാനായിട്ട് ഇതിൻ്റെ പേരിലൊരു പ്രശനം ഉണ്ടാക്കുന്നില്ല എൻ്റെ പൈസ തിരിച്ച് തന്നാൽ ഇവിടെ തീരാവുന്ന പ്രശ്നേ ഉള്ളു അല്ലങ്കി ഇത് വലിയ പ്രശ്നമാകും സാർ ഓക്കെ ഓക്കെ ശരി സാർ റീഫണ്ട് ഇത് ഈ നമ്പറിലേക്ക് തന്നെ റീഫണ്ട് ചെയ്താൽ മതി ആ ഓക്കെ സാർ ഓക്കെ ബൈ ഇനിയാണേലും ശ്രദ്ധിക്ക് ശ്രദ്ധിച്ച് ചെയ്യ്